ഞങ്ങളുടെ സ്ഥലത്ത് ഏറ്റവും ഒരു പ്രശസ്തമായി അറിയപ്പെടുന്നൊരു കോളേജാണ് ദേവമാതാ കോളേജെന്നു പറയുന്നത് ദേവമാതാ കോളേജ് കുറവലങ്ങാടെന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാടെന്ന സ്ഥലം അ അറിയപ്പെടുന്നതു തന്നെ കുറവലങ്ങാട് മുത്തിയമ്മയുടെ പേരിലാണ് ആ ദേവാലയത്തോടു ചേർന്നിരിക്കുന്ന അവിടുത്തെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കോളേജാണ് ദേവമാതാ കോളേജെന്നു പറയുന്നത് ഏകദേശം അറുപത് വർഷം പഴക്കമാണ് ആ കോളേജിനുള്ളത് ഞാൻ പഠിച്ചതും അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ പഠിച്ചതും അച്ഛൻ്റെ പെങ്ങൾ പഠിച്ചതും ഇപ്പം ഇപ്പം എൻ്റെ കസിൻസ് പഠിക്കുന്നതുമങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഒട്ടന ഒട്ടനവധി ആളുകളിപ്പം പഠിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ദേവമാതാ കോളേജിലാണ് ദേവമാതാ കോളേജെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാ മാതാവിൻ്റെ പേരിലറിയപ്പെടുന്ന കോളേജാണ് അവിടെ നമ്മുടെ ആർ സി കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് കാത്തോലിക്കാരായിട്ടുള്ള വൈദികരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണത് അവിടെ പലതരത്തിലുള്ള വിഭാഗങ്ങളാണുള്ളത് മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി കൊമേഴ്സ് അങ്ങനെ പല തരത്തിലുള്ള വിഭാഗങ്ങളവിടെ പഠനമായിട്ട് ബന്ധപ്പെട്ടുണ്ട് കലാകായിക വിഭാഗത്തിലാണെങ്കിലും വളരെ മുന്നോട്ടു നിൽക്കുന്ന ഒരു കോളേജായിട്ട് നമുക്ക് ദേവമാതാ കോളേജിനെ കാണാൻ പറ്റും എൻ്റെ ഇംഗ്ലീഷ് ബിരുദം ഞാൻ പഠിച്ചത് ഈ ദേവമാതാ കോളേജിലായിരുന്നു പിന്നെ ആ കോളേജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കോളേജിന് ഒട്ട് ഒട്ടനവധി നമുക്കാണെങ്കിൽ പല കാര്യങ്ങളുപയോഗിക്കാൻ വേണ്ടി പറ്റും ഇപ്പം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ലൈബ്രറി ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ജിമ്മുണ്ട് നമുക്കാണെങ്കിൽ പലതരത്തിലുള്ള അവസരങ്ങൾ അവിടെ നമുക്ക് ലഭിക്കാറുണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ അദ്ധ്യാപകരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്കൊത്തിരി സ്നേഹം തോന്നും അല്ലേ നമ്മളതുപോലെ കരുതലോടെ കൊണ്ടു നടക്കുന്ന അദ്ധ്യാപകരാണവിടെ ഉള്ളത് അവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് അവിടെ നിന്ന് നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയെങ്കിലും ഇത്ര വർഷങ്ങൾക്കു ശേഷം എനിക്കവിടുത്തേ കുറിച്ചോർക്കുമ്പോളെനിക്കോർമ്മ വരുന്നത് അവരെന്നെ എന്തു മാത്രം ആ ഒരു കോളേജ് കാരണം എന്തു മാത്രം നല്ല കാര്യങ്ങൾ എന്നിലുണ്ടായിട്ടുണ്ട് എന്നതാണ് ആ കോളേജിലൂടെ നടന്നതും അതുപോലെ തന്നെ ആ കോളജുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ എൻ്റെ ആത്മീയപരമായ മാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ കോളേജിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു കോളേജായിട്ടു വേണം പറയാൻ വേണ്ടിയിട്ട് ആ കോളേജിലേറ്റവും ശ്രദ്ധയാർജ്ജിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആകർഷണീയമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് അവിടുത്തെ സുവോളജി ലാബെന്നു പറയുന്നത് സാധാരണ സുവോളജി ലാബുകൾ പോലെ ഉള്ളത് ആണെങ്കിലും അവിടുത്തെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കൂടി ഒരു വിജ്ഞാനം പകരുന്ന രീതിയിലുള്ളൊരു സുവോളജി ലാബാണ് വരുന്നത് കുട്ടികൾക്കാണെങ്കിലും ഇപ്പം ഒരു ഒരു ക്ലാസ്സിലാകെ അൻപത് കുട്ടികളാണ് യൂ ജിയിലുള്ളതെങ്കിലും പി ജി ക്ലാസ്സിലേക്കു വരുമ്പോഴത്തേക്ക് കുറച്ച് സബ്ജക്റ്റുകളവിടെ ഉണ്ടെന്നു പറഞ്ഞാലും നല്ല വിജയമാർജ്ജിക്കുന്നൊരു കോളേജായിട്ട് ദേവമാതാ കോളേജ് മാറാറുണ്ട് ഇപ്പം ഞാൻ പഠിച്ചിറങ്ങിയ വർഷമായാൽ പോലും ഞങ്ങളുടെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഏകദേശം മൂന്നാല് റാങ്കുകാർ എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണീ ദേവമാതാ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിലെ ഒന്നാമത്തെയും എട്ടാമത്തെയും അതു പോലെ പത്താമത്തെ റാങ്ക് ഞങ്ങളുടെ ദേവമാതാ കോളേജിൽ നിന്നായിരുന്നു ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വിഷയത്തിന് അതുപോലെ തന്നെ വേറുള്ള വിഭാഗങ്ങൾ പഠന ശാഖകൾ നോക്കുമ്പം അവർക്കും നമുക്ക് ആദ്യത്തെ പത്തു റാങ്കുകളിൽ ഒട്ടുമിക്ക റാങ്കുകളും ദേവമാതാ കോളേജിനു തന്നെ ആയിരുന്നു കിട്ടിയിരുന്നത്